സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകൾക്ക് അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളെക്കുറിച്ച് കൂടുതല് ഉത്തരവാദിത്വം അല്ലെങ്കില് അവരുടെ നന്മ അതിനെക്കുറിച്ച് അവിടെ അതിൻ്റെ അധികാരികൾക്കും അധ്യാപകർക്കുമൊക്കെ കൂടുതല് താൽപ്പര്യത്തോടുകൂടി അവര് പ്രവർത്തിക്കും അവർക്ക് ആ വരുന്ന കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും ആ സമൂഹത്തോടുമൊക്കെ കൂടുതല് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകസമൂഹം തന്നെയാണ് സ്വകാര്യ സ്കൂളുകളുടെ ഒരു വലിയ പ്രത്യേകതയെന്ന് പറയുന്നത് സർക്കാർ സ്കൂളുകളെന്ന് കേൾക്കുമ്പോള് തന്നെ മനുഷ്യർക്ക് ആളുകൾക്കൊരു അതിനോടൊരു താല്പര്യമില്ലായ്മയുണ്ട് അതിന് പ്രധാന കാരണം ആ സ്കൂളിലെ തന്നെ കുട്ടികളെക്കുറിച്ചോ അല്ലെങ്കില് അവരുടെ മാതാപിതാക്കളെക്കുറിച്ചോ അല്ലെങ്കില് അവരുടെ ആഗ്രഹങ്ങളെക്കുറിച്ചോ ഒന്നും വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കില് ആ അവരോടൊരു പ്രതിബദ്ധത ആ സ്കൂളുകൾക്കോ അതിൻ്റെ അധികാരികൾക്കോ ഒന്നുമുള്ളതായിട്ട് പലപ്പോഴും ജനങ്ങൾക്ക് അനുഭവപ്പെടാറില്ലെന്നുള്ളത് തന്നെയാണ് സർക്കാർ സ്കൂളുകളില് വളരെ ദൂരെയുള്ള അധ്യാപകരെയൊക്കെയായിരിക്കും അവിടെ നിയമിക്കുന്നത് അവര് അവരുടെ സൗകര്യത്തിന് വരുന്നു പോകുന്നു അപ്പോള് കുട്ടികളോട് അത്രമാത്രമൊരു പ്രതിബദ്ധതയൊന്നും കാണിക്കാൻ കാണിക്കുന്നുണ്ടാവുകയില്ല പിന്നെ ഒരു ശരിക്ക് പറഞ്ഞാല് ഒരു ഉത്തരവാദിത്തമില്ലായ്മ അവിടെ വളരെ പ്രകടമായിട്ട് ഫീല് ചെയ്യുന്ന ഒരു കാര്യമാണ് അതേസമയം സ്വകാര്യ സ്കൂളുകളാണെങ്കില് അല്ലെങ്കില് എയ്ഡഡ് സ്കൂളുകളാണെങ്കില് അവിടെ വരുന്ന കുട്ടികളെക്കുറിച്ച് വളരെയൊരു ഉത്തരവാദിത്വം ആ കുട്ടികളുടെ പഠനത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും അവരുടെ സുരക്ഷിതത്വത്തിലും വ്യക്തിത്വ വികസനത്തിലുമൊക്കെ നല്ല മാതൃകകള് നൽകുന്ന നല്ല ഉത്തരവാദിത്തമുള്ള തങ്ങളേറ്റെടുത്തിരിക്കുന്ന ആ ജോലിയെക്കുറിച്ച് ഒരു അവബോധമുള്ള ഒരു അധ്യാപകസമൂഹവും ഒരു മാനേജ്മെൻറ്റും ഒക്കെ സ്വകാര്യ സ്കൂളുളില് നമുക്ക് പ്രത്യക്ഷത്തില് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കള് അധികവും ഈ ഇന്ന് സ്വകാര്യ സ്കൂളുകളിലേക്ക് അല്ലെങ്കില് ഏയ്ഡഡ് സ്കൂളുകളിലേക്കൊക്കെ കുട്ടികളെ വിടാനായിട്ട് താല്പര്യപ്പെടുന്നു ഇപ്പോള് ഈ കാലത്ത് സർക്കാരിൻ്റെ ധാരാളം എയ്ഡുകള് സംഭാവനകള് അല്ലെങ്കില് ഈ സർക്കാർ സ്കൂളുകളെ മെച്ചപ്പെടുത്തിക്കൊണ്ടുവരാൻ അവരുടെ ഭൗതികസാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ധാരാളം ഫണ്ടുകളൊക്ക നൽകുന്നുണ്ട് അപ്പം ഈ ഈ കാലഘട്ടത്തില് സർക്കാർ സ്കൂളുകള് മറ്റ് സ്വകാര്യ സ്കൂളുകളെക്കാള് അല്ലെങ്കില് എയ്ഡഡ് സ്കൂളുകളെക്കാള് ഭൗതികസാഹചര്യങ്ങളൊക്കെ വളരെയേറെ മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നവയാണ് ഇപ്പോള് ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണെങ്കില് തന്നെ സർക്കാർ സ്കൂളുകളില് ഒത്തിരി ഫണ്ടുകളൊക്ക കിട്ടുന്നുണ്ട് അപ്പോള് അതിന്റേതായൊരു ഭൗതികസാഹചര്യങ്ങള് കെട്ടിടം ആ അവിടുത്തെ ഉപകരണങ്ങള് ഇവയുടെയൊക്കെ കാര്യത്തില് വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്നുണ്ട് പക്ഷേ അവിടെ ആളുകള് കുട്ടികളെ വിടാനായിട്ട് അധികം താല്പര്യപ്പെടുന്നില്ല പിന്നെ പരീക്ഷ രീതികളിലൊക്കെയുള്ള പോരായ്മകള് ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ളൊരു നല്ലയൊരു സിലബസ്സ് അത് പാഠപുസ്തകങ്ങളൊക്കെയാണെങ്കില്പ്പോലും അത് വളരെ പ്രഖ്യാപനങ്ങള് മാത്രമാണ് വലിയ വലിയ കാര്യങ്ങള് പറയും ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും കുട്ടികൾക്ക് അല്ലെങ്കില് ജനങ്ങൾക്ക് നല്ല രീതിയില് പ്രയോജനപ്പെടുത്താൻ പലപ്പോഴും പറ്റുന്ന പറ്റുന്ന വിധത്തിലുള്ളവയായിരിക്കില്ല കുറെ റിപ്പോർട്ടുകളും കുറെ കാര്യങ്ങളുമൊക്കെ അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോള് അധ്യാപകര് ഇതൊക്കെ ഉണ്ടാക്കിക്കൊടുക്കാനൊക്കെയായിട്ടുള്ള ശ്രമങ്ങളിലായിരിക്കും അല്ലാതെ ഒരു കുട്ടിയെ നല്ല രീതിയില് എങ്ങനെ വളർത്തിക്കൊണ്ടുവരാനുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളെക്കാള് ഓരോ ഓരോ സർക്കാരുകളും ഓരോ തീരുമാനങ്ങള് പദ്ധതികള് കൊണ്ടുവരുന്നു അത് വളരെ മികച്ചതാണ് എന്ന് വരുത്തിത്തീർക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കുറെ കാര്യങ്ങളാണ് ശരിക്കും നടക്കുന്നതെന്നാണ് തോന്നുന്നത് അല്ലാതെ ഈ കൊണ്ടുവരുന്ന ഒരു കാര്യം ഒരു പുതിയ പദ്ധതി അത് കുട്ടികൾക്ക് യഥാർത്ഥത്തില് അടിസ്ഥാനപരമായ കുട്ടികളെ നല്ല രീതിയില് വളർത്തുന്നതിന് കുട്ടികൾക്ക് സമൂഹത്തില് ഒരു ഉയർച്ചയിലേക്ക് വരാനായിട്ട് ഈ പദ്ധതികളൊക്കെ പ്രയോജനകരമാണോ എന്നതിനെക്കുറിച്ച് ചിന്തിക്കാതെ പലപ്പോഴും ഇതിങ്ങനെ വളരെ നല്ലതാണെന്ന് പൊതുസമൂഹത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറെ കാട്ടിക്കൂട്ടലുകളാണ് ശരിക്കും പറഞ്ഞാല് നടക്കുന്നതെന്നാണ് തോന്നുന്നത് സ്കൂളുകളിലേക്ക് ആവശ്യപ്പെടുന്ന അല്ലെങ്കില് സ്കൂളുകളിൽ നിന്ന് നടത്തണമെന്ന് പറയുന്ന പല കാര്യങ്ങളും അതൊക്കെ സത്യത്തില് പിള്ളേര് അക്ഷരം പഠിച്ച് വായിക്കാൻ പഠിച്ച് അവര് നല്ല നിലയിലെത്തുന്നതിന് അതിനേക്കാളുപരി കുറെ ഇന്ന പുതിയ കാര്യം ഇത് കൊണ്ടുവന്നു ഇത് വളരെ നല്ലതാണ് അങ്ങനെ പുറംപൂച്ചുകള് മാത്രമാണ് യഥാർത്ഥത്തില് നടക്കുന്നത് ഉള്ളിലൊരു ഉള്ളിൻ്റെയുള്ളിൽ നല്ലയൊരു മാറ്റം ഒരു വളർച്ച ഉണ്ടാകുന്നില്ലെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്

അപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ കുറച്ച് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തലുകളല്ല നമുക്ക് വേണ്ടത് നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടികളിവിടെ സ്കൂൾ നമ്മുടേതായ സ്കൂളുകളില് പഠിച്ച് നല്ല നിലവാരത്തില് എത്തിച്ചേരണം അപ്പോള് ഈ ഗ്രേഡിംഗ് സിസ്റ്റമൊക്കെ വന്ന് ആയപ്പോഴും സത്യം പറഞ്ഞാല് എല്ലാം ഫുള് എ പ്ലസ് ഒക്കെ കിട്ടിയ പിള്ളേര്ക്ക് പോലും യഥാർത്ഥത്തില് അക്ഷരതെറ്റില്ലാതെ എഴുതാനൊക്കെ പറ്റുന്നുണ്ടോയെന്ന കാര്യത്തില് വളരെ സംശയമുണ്ട് അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് അവരെയങ്ങ് ജയിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് അധ്യാപകരെ നിർബന്ധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പലപ്പോഴും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കില് പറ്റില്ലെന്നുള്ളൊരു വിധത്തിലേക്ക് ഇങ്ങനെ ആളുകളെ കൊണ്ടുവന്ന് അതിനായിട്ട് അവരെ അപ്പം അധ്യാപകർക്ക് പോലും സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധ്യമല്ലാത്ത വിധത്തിലുള്ള സമ്മർദ്ദങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുന്ന ഒരു രീതിയൊക്കെ പലപ്പോഴും പുറമേ നിന്ന് നോക്കുമ്പോള് തോന്നാറുണ്ട്